ഒരു മനുഷ്യൻ്റെ വേരുകളെന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബമാണ് ഫാമിലി അപ്പോൾ കുടുംബത്തിലായിരിക്കും അവൻ്റെ എല്ലാം ഉണ്ടാവുക വേരുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ നമ്മടെ മുതിർന്ന ബന്ധുക്കൾ എല്ലാം അതെല്ലാം അടങ്ങിയതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വേരുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാട് ആളുകൾ ഇപ്പോൾ ജോലിക്കും ഒക്കെ പല കാര്യങ്ങൾക്കായിട്ട് വിദേശ രാജ്യങ്ങൾ അങ്ങനെ പല രാജ്യങ്ങളിൽ പോയി ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ താമസ സ്ഥലവും ബന്ധുക്കളെ എല്ലാം അന്വേഷിച്ച് വരുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ അപ്പോൾ ഞാനത് കണ്ടിട്ടുള്ളതാണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കേയും തങ്ങളുടെ ബന്ധുക്കളെയും എല്ലാം അന്വേഷിച്ചിട്ട് വരുന്ന സാഹചര്യം ഉണ്ട് അതുപോലെത്തന്നെ പല രീതിയിലുള്ള ബന്ധങ്ങളെ എല്ലാവരും തമ്മിൽ അത് ഒരു അറ്റാച്ച്മെന്റ് എല്ലാം ഉള്ളത് പിന്നെ ബന്ധങ്ങൾ തന്നെയാണ് പല രീതിയിൽ അങ്ങനെ അന്വേഷിച്ച് വന്ന ആളുകളുണ്ട് സ്വന്തം കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യനേറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കുള്ളൂവെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ വേരുകളെല്ലാം നമ്മുടെ കുടുംബമാണ് അതേപോലെ നമ്മുടെ കൾച്ചർ അതായത് നമ്മുടെ സംസ്കാരം നമ്മുടെ ഭാഷ എല്ലാം നമ്മുടെ വേരുകളിൽ പെട്ടതാണ് ഇതെല്ലം ഇനിയൊരു കുറച്ച് കാലത്തിന് ശേഷം ഇല്ലാതെ ആവാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മളാണ് പല രീതിയിലും ഇത് നമ്മൾ നോക്കണം എന്നി അതിന് ശേഷം മാത്രമാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുള്ളു പല രീതിയിലായി നമ്മുടെ ബന്ധങ്ങളില്ലാത്ത കൊണ്ട് നമുക്ക് പല പ്രശ്നങ്ങളും സംഭവിക്കാം നമ്മളുടെ സംസ്കാരം തന്നെ ഇല്ലാതായി പോയാലും നമ്മൾ വേണം എല്ലാം മുന്നിൽ നിന്ന് നോക്കാൻ പല രീതിയിലും അങ്ങനത്തെ പ്രശ്ങ്ങൾ ഉണ്ടാവും അതുപോലെ കുടുംബ ബന്ധങ്ങളാണ് നമ്മുടെ വേരുകളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഫാമിലി അതുപോലെ നിങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് നമ്മുടെ സംസ്കാരം കൾച്ചർ നമ്മുടെ ഭാഷ നമ്മുടെ രാജ്യം നമ്മൾ ജീവിക്കുന്ന സ്ഥലം നമ്മുടെ ഗ്രാമങ്ങൾ എല്ലാം നമ്മുടെ രീതികൾ ആയിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മുടെ അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം പൂർത്തിയാവുള്ളൂ അല്ലെങ്കിൽ അത് ഒരിക്കലും പൂർണമാവില്ല ഒരു നമ്മുടെ വേരുകൾ അന്വേഷിച്ച് പോകേണ്ട അവസ്ഥ നമ്മൾ ഉണ്ടാക്കിക്കരുത് നമ്മളെന്നും അതിന് ഒരു പരിഗണന കൊടുത്തുകൊണ്ട് നമ്മോടൊപ്പം നിർത്തണം അതിപ്പോൾ നമ്മളെവിടെ ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും നമ്മുടെ സംസ്കാരം ആയിരിക്കണം നമ്മൾ ഫോളൊ ചെയ്യേണ്ടത് അത് നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കാനും നമ്മൾ ശ്രമിക്കണം നല്ല രീതിയിലത് നല്ല ഉദേശത്തോടേയും നല്ല രീതിയിലത് എല്ലാ ആളുകളിലേക്കും അത് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അത് അതിനോടൊപ്പം ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും അത് നടത്തുകയും വേണം ഭാരത സംസ്കാരം ഏറ്റവും ഇമ്പോർട്ടന്റായ ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാരതീയൻ എന്നതിൽ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ നല്ല കാര്യങ്ങളായിട്ട് കൊണ്ട് വരാം അങ്ങനത്തെ പല സംഭവങ്ങളും സംഭവിക്കും അത്രേ പറയാൻ ഉളളൂ